എന്താടാ പറ നാളെ ഫ്രീയല്ല എന്നാലും നീ പറഞ്ഞോ എന്താ അയ്യോ എവിടെയാടാ ആ സിനിമയെക്കെ തീയറ്ററിൽപ്പോയി കാണണോടാ നമുക്ക് വല്ല ഫോണിലൊക്കെ വരത്തില്ലേ എന്നാലും അത്രയും പൈസയൊക്കെ കൊടുത്ത് എന്നാൽ അത്രയും പൈസ ഒക്കെ കൊടുത്ത് സിനിമേക്കെ കാണുന്നതിനെക്കാട്ടിലും ഒരു മൂന്നുനാല് ദിവസം വേയ്റ്റ് ചെയ്താൽ ഓ റ്റീ റ്റി വരത്തില്ലേ ഇത് എടെ ഇല്ല നമ്മൾക്ക് കുറച്ച് നമുക്ക് പൈസയും ലാഭിക്കാം കുറച്ച് ദിവസം കഴിയുമ്പം അല്ലെങ്കിൽ ടീ വീ ലോ ഒക്കെ വരത്തില്ലേ ഇത് ആ ഹലോ എടാ പറഞ്ഞാൽ ആ ഇല്ലടാ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ എന്തോന്ന് അത്രയും സമയം ലാഭിച്ച് കിട്ടാലോ അപ്പം വീട്ടിലിരുന്ന് ആണെങ്കിൽ ഓ റ്റീ റ്റീ യിലോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർലോ ഒക്കെ നമുക്ക് കാണാമല്ലോ നെറ്റ്ഫ്ലിക്സിലോ ഒക്കെ അപ്പം ഞാൻ ആ ഹലോ എടാ ഇപ്പം നമുക്ക് ഹോം തീയറ്റർ ഒക്കെ നമുക്ക് വീട്ടിൽത്തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമുക്ക് എന്താ സിനിമ തിയേറ്ററിൽപ്പോയി കാണുന്ന എഫെക്റ്റ് നമുക്ക് വീട്ടിൽ ഇരുന്നാൽ കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടാൽ പോരേ എല്ലാവരുമായിട്ട് ഒക്കെ വിളിച്ച് അങ്ങനെ ഒക്കെ കാണുന്നതല്ലേ നല്ലത് ഹലോ നീയൊന്ന് ആലോചിച്ച് നോക്ക് അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എടാ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് ഇത് ഹോം തീയറ്ററ് പോലെ നമുക്ക് വീട്ടിൽത്തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ ആ തീയറ്റർൽ ഇരുന്ന് കാണുന്നതിൻ്റെ അതേ എഫെക്ട് തന്നെ വീട്ടിലും കിട്ടും അപ്പോൾ എനിക്ക് അത് നല്ലതായിട്ട് തോന്നി നീ ആലോചിച്ച് നോക്ക് എന്തായാലും

നീയൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക് കാരണം ഇപ്പോൾ പണ്ട് ഇപ്പോൾ കുറച്ച് ലേയ്റ്റ് ആയിട്ടായിരിക്കും ഓ റ്റീ റ്റി വരുന്നത് ഇപ്പം അങ്ങനെയല്ലല്ലോടാ പൈസയടച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ആയിരുന്നാലും പിന്നെ ഒരു രണ്ട് ആഴ്ച്ചയിലൊക്കെ കഴിയുമ്പം നമുക്ക് കിട്ടും അതല്ല നമുക്ക് യാത്ര ചെയ്യുന്നത് ലാഭിക്ക് നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്നത് ഒന്ന് അവോയിഡ് ചെയ്യാമല്ലോ വീട്ടിൽ സുഖമായിട്ട് ഇരുന്ന് വേറെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ലല്ലോ അത് ഇപ്പം നമുക്ക് ടീവീൽ ആയിരുന്നാലും അത് കാണാമല്ലോ

അയ്യോ നീ അങ്ങനെ പറയല്ലേ നീ നമുക്ക് പല കാര്യങ്ങൾ എക്സ്പീര്യൻസ് ചെയ്യാമല്ലോ തിയേറ്ററും അതുപോലെ എന്താ ഫോണിൽ സിനിമാ കാണുന്നതും ഓക്കെ അതിന് സമ്മതമാണ് കുഴപ്പം ഇല്ലല്ലോ ഓ